എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്കേറ്റവും കൂടുതൽ എളുപ്പവും പറയാൻ സാധിക്കുന്നതും മാർക്ക് കിട്ടുന്നതും ആയുള്ള ഭാഷ മലയാളമായിരുന്നു കാരണം നമ്മുടെ മാതൃഭാഷയാണ് മലയാളം അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളെപ്പോഴും സംസാരിക്കുന്നതും എന്തു ചെയ്താലും മലയാളത്തിലൂടെയാണ് നമ്മളത് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നമുക്ക് മലയാളം പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല മലയാള ഭാഷ മലയാള ഭാഷയിലൂടെയാണ് നമ്മൾ ആദ്യത്തെ നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ജനിച്ചപാട് നമ്മൾ ആ ജനിച്ച് കൊറച്ചു കഴിഞ്ഞപാട് നമ്മൾ സംസാരിക്കുന്നത് തന്നെ മലയാളത്തിലാണ് അമ്മ എന്നു നമ്മൾ സംസാരിക്കുമ്പോൾ അതു മലയാളത്തിലാണ് അപ്പോൾ നമ്മൾക്ക് മലയാളഭാഷ വളരേ പ്രിയപ്പെട്ടതായിരിക്കും അതുകൊണ്ടുതന്നെ എനിക്ക് മലയാളം അധ്യാപകരെയും വളരേ ബഹുമാനമാണ് ഇപ്പോഴും എനിക്ക് മലയാളം പഠിക്കാൻ ഇപ്പം ഇപ്പോഴും ഞാൻ മലയാളം തന്നെയാണ് പഠിക്കുന്നത് വളരേ സിംപിളാണ് നമുക്ക് എന്തും എല്ലാത്തിനും മലയാളം നമുക്ക് ഇതാണ് ചെയ്യുന്നത് നമ്മുടെ മാതൃഭാഷയാണ് നമ്മുടെ മലയാളം എന്നുപറയുന്നത് മലയാള ഭാഷ മലയാളത്തിൽ നമുക്ക് എന്തുവേണമെങ്കിലും എഴുതാം ആ ഒരു എക്സാം പേപ്പറിൽ മറ്റു വിഷയങ്ങളേക്കാളും കൂടുതൽ നമ്മൾക്ക് എഴുതാൻ സാധിക്കുന്നത് ഈ മലയാളമാണ്